നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സം സംസ്ഥാനത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിലും മലയാള ഭാഷയുടെ പങ്കു വളരെ വലുതാണ്

ഈ മലയാള ഭാഷയിൽ വളരെയേറെ വളരെ നല്ല മികച്ച കൃതികളും ലോകോത്തര കൃതികളും ഒക്കെ ഉണ്ട് വളരെയധികം നല്ല കവികളെയും മറ്റും മല മലയാളം ഭാഷയാണ് സംഭാ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത് ഈ മലയാള ഭാഷ ഫര കേരളത്തിലെ ഭരണ ഭാഷ ആക്കണമെന്നു തന്നെയാണ് എൻറ്റെ അഭിപ്രായം വ മലയാള ഭാഷയെ സമ്മ പ്രോത്സ സംരക്ഷിക്കുന്നതിൽ വ പൈതൃകം സംരക്ഷിക്കുന്നതിലും ന ഓരോ മലയാളിയും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു മ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സ് ഫാഷൻ അനുസരിച്ച് ട്രെൻഡ് അനുസരിച്ച് കൂടുതലും ആംഗലേയഭാഷ പഠിക്കാനാണ് ഇംഗ്ലീഷ് ഭാഷ ഹിന്ദി അമ അങ്ങനെ ഫ്രഞ്ച് ജർമ്മൻ ഇതൊക്കെ പഠിക്കാനാണ് ഇപ്പോഴത്തെ കുട്ടികൾ താത്പര്യപ്പെടുന്നത്

സംരക്ഷിക്കുന്നേൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും നമ്മുടെ ശ്രദ്ധ കണ്ടെത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്